മുപ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്